ഹലോ ക്യാബ് ഏജൻസി അല്ലെ ആ ഞാൻ വയനാട്ടിൽ നിന്ന് വിളിക്കുവായിരുന്നേ എനിക്ക് ഒന്ന് എറണാകുളം വരേ ഒര് ട്രിപ്പ് പോകാനായിരുന്നു ആ അപ്പൊൾ ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു അപ്പൊൾ കുറച്ച് ലോങ്ങ് ട്രിപ്പാണ് എറണാകുളം കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് അപ്പൊൾ കുറച്ച് ലോങ്ങാണ് അപ്പൊൾ എത്രയാകുന്നുവെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഓക്കേ ഹാ ആ ഓക്കേ അല്ല ഞാൻ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ് ഞാൻ എവിടെ പോവാനാണെങ്കിലും നിങ്ങളുടെ ക്യാബാണ് ബുക്ക് ചെയ്യാറ് എപ്പോഴും ഇത് ഇപ്പൊ കൊറേ തവണയായി നിങ്ങളെ വിളിക്കുന്നു അപ്പൊൾ അതിൻ്റെതായ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അല്ല എല്ലാർക്കും കൊടുക്കുന്ന ഡിസ്കൗണ്ട് അല്ലാണ്ട് നമ്മളിപ്പോ സ്ഥിരം കസ്റ്റമർ ആണല്ലോ അപ്പൊൾ നമുക്ക് അതിൻ്റെതായ ഒരു ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മള് എവിടെ പോകണമെങ്കിലും നിങ്ങളുടെ ക്യാബ് തന്നെയാണ് ബുക്ക് ചെയ്യാറ് അപ്പൊൾ അതിൻ്റെതായ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് വേണമല്ലോ നമ്മൾ അത്രേം കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇപ്പൊൾ വേണമെങ്കിൽ വേറെ ക്യാബ് ബുക്ക് ചെയ്യാം എന്നാലും ഞങ്ങള് നിങ്ങളെ അത്രേം ട്രസ്റ്റഡ് ആയത്കൊണ്ടായിരിക്കും ഞങ്ങളത് എപ്പഴും നിങ്ങളെ വിളിക്കുന്നത് അപ്പൊൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്കൗണ്ട്സ് ഒക്കെ തരുവാണെങ്കിൽ ആ ഓക്കേ ഓക്കേ മതി മതി ആ ഓക്കേ ആ എന്നത്തേക്കാണ് പോകുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഒര് രണ്ട് ആഴ്ചക്ക് അകം ചിലപ്പോൾ പോകുമായിരിക്കും ഞാൻ വിളിക്കാം ഒന്നൂടെ ഓക്കേ ഓക്കേ ശരി